ഹലോ ജെ ജെ സ്റ്റോഴ്സ് ആണോ ഇപ്പം ഫ്രൂട്ട്സിനൊക്കെ എന്താണ് വിലക്കുറവ് വിലക്കുറവാണോ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണമായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ എനിക്ക് എനിക്ക് കുറച്ച് മാങ്ങ വേണം കുറച്ച് ചെറുപഴം വേണം കുറച്ച് കപ്ലങ്ങ ഉണ്ടെങ്കിൽ കപ്ലങ്ങ വേണം ചക്ക വേണം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വേണമായിരുന്നു എല്ലാത്തിനും ഓരോ കിലോയ്ക്ക് എത്രയാണ് വില ഓക്കെ ഓക്കെ ഓക്കെ അപ്പം എനിക്ക് ചക്ക ഒരു രണ്ട് കിലോ വേണം മാങ്ങ ഒരു നാല് കിലോ വേണം കപ്പ്ളങ്ങ ഒരു രണ്ട് കിലോ വേണം പിന്നെ ചെറുപഴം ഒരു രണ്ട് കിലോ വേണം ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ പിന്നെ അവിടെ ഹോം ഡെലിവറി ഉണ്ടോ ഓക്കെ അപ്പം പിന്നെ എനിക്ക് എപ്പോഴത്തേക്ക് എത്ര സമയം എടുക്കും സാധനം കൊണ്ടുവരാനായിട്ട് ആ ഓക്കെ ആ അഡ്രസ്സ് ഞാൻ ഇട്ടേക്കാം ഫോണിൽ ഇട്ടേക്കാം ഗൂഗിൾ പേ ചെയ്തേക്കാം പൈസ